ആ ഹലോ ആ ഹലോ ചേട്ടാ ഞങ്ങളിവിടെ ഇവിടെ ശ്രീ ബുദ്ധ കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് ചേട്ടൻ്റെ അവിടെ നമ്പര് ചേട്ടൻ്റെ നമ്പർ ഇവിടെ ഓട്ടോസ്റ്റാൻഡിൽ അനേഷിച്ചപ്പോൾ കിട്ടിയതാ ഞങ്ങൾക്ക് റൂമ് ഒരു വീട് വാടകക്ക് കിട്ടിയാൽ നന്നായിരിക്കും ഞങ്ങൾ രണ്ടുപേർ ഉണ്ടാവും ചേട്ടാ

റ്റു ബി എച്ച് കെ നമുക്ക് റ്റു ബി എച്ച് കെ കിട്ടിയാൽ നന്നായിരിക്കും പിന്നെ കിച്ചണും കാര്യങ്ങളും നമ്മുടെ പിന്നെ ഞങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് കാര്യങ്ങളായിട്ട് കിട്ടണം ആ അതെയതെ ഞങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ ഇനി അറിയി ആ സ്റ്റാർട്ടിങ് വരുന്നത് റ്റു ബി എച്ച് കെ ആ ഓക്കെ ആ ആ അതിന് എത്രയാവും എത്രയാവും ചേട്ടാ ഫോർ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അത് നമുക്ക് ഇവിടെ ടൗൺ ഏരിയായിൽ തന്നെ കിട്ടുമോ അടുത്ത് നമുക്ക് കോളേജിൻ്റെ അടുത്തായിട്ട് തന്നെ ആണല്ലേ അവിടെ കാര്യങ്ങൾ ഏരിയോക്കെ എങ്ങനെ ഉണ്ട് നമുക്ക് പോയിട്ട് ഒരു ഞങ്ങൾ രണ്ട് പെങ്കൊച്ചുങ്ങൾ അല്ലേ പോയിട്ട് നിൽക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ് ആയിട്ട് ഒരു ആ ആ ആ ആ ഓക്കെ നമുക്ക് ആ ഡെപ്പോസിറ്റ് ഒക്കെ എത്രയാ ചേട്ടാ വരുന്നത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എത്രയായിരിക്കും നമുക്ക്

ഓക്കെ ചേട്ടാ പിന്നെ അവർ അവർ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണോ ഓണേഴ്സ് നമുക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഓക്കേ ഹാഡ് വാട്ടർ എങ്ങാനും ആണോ ചേട്ടാ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് ആ ആ ഓക്കെ ഓക്കേ ചേട്ടാ ആ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുംകൂടി ഒന്ന് ആ ചോദിച്ചിട്ട് പറയാം ചേട്ടാ ഓക്കെ ശരി